ഹലോ കുട്ടനാടൻ പാലസല്ലേ ആ ഞാനേ കുറച്ച് ഫുഡൊക്കെ ഓഡറ് ചെയ്തിരുന്നല്ലോ ആ അത് റെഡിയാണോ ആ ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞ അനുസരിച്ചുള്ള ഫുഡെല്ലാം ഉണ്ടല്ലോ അല്ലേ ആ എത്രയും പെട്ടെന്ന് കൊടുത്തു വിടണം അല്ലെങ്കിലേ എനിക്ക് പിന്നെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ഒത്തിരി പിന്നെ ഷുഗറും അതൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വിടണം ക്യാഷ് ഞാൻ കൊടുത്തു വിട്ടേക്കാം കുഴപ്പമില്ല അതു ഞാൻ എങ്ങനെയെങ്കിലും അത് കൊടുത്തു വിടാം എനിക്ക് ഫുഡ് നല്ലതായിരിക്കണം കേട്ടോ നല്ല ഫുഡ് കൊടുത്തു വിടണം